ഞാൻ കൂടുതലും അലൂമിനിയം സ്റ്റീൽ സ്റ്റീൽ പാത്രം പിന്നെ പാൻ അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ കൂടുതലും ഇവിടെ ഭക്ഷണം വയ്ക്കൽ അപ്പോൾ ചോറൊക്കെ വയ്ക്കുന്നതാണെങ്കിൽ അലൂമിനിയം ചെമ്പിലാണ് ഇത് വയ്ക്കുക പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ചട്ടി മൺചട്ടിയിൽ ഞാൻ ചോറ് വയ്ക്കലുണ്ട് അപ്പം മൺചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര നല്ലതാണ് ചോറൊക്കെ വയ്ക്കാൻ കുറച്ചുകൂടി നല്ലത് അലൂ ഇത് മൺചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും കുടുക്ക അതിൽ കുടുക്ക മ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുടുക്ക അതിലാണ് ഞാൻ ഇപ്പോൾ കുറച്ചുനാളായിട്ട് വയ്ക്കുന്നത് ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് അവിടെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് തോന്നി അത് എനിക്ക് നല്ലത് അതിൽ ചോറ് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിപ്പം കുടുക്കയിലാണ് ചോറെല്ലാം വയ്ക്കൽ പിന്നെ ചായ എല്ലാം വയ്ക്കുന്നതാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ആണ് ചായ വയ്ക്കുന്നത് എന്തെങ്കിലും എല്ലാം കറി എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ പാനിൽ ഉണ്ടാക്കും അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലും ഇങ്ങനെ അലൂമിനിയം മൺചട്ടി ഉപയോഗിക്കുന്നുണ്ട് കറി മീൻ കറി എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ മണ്ണ് ഈ മൺചട്ടിയും കുടുക്കയും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക ഞാൻ അതിൽ വയ്ക്കാനാണ് കൂടുതൽ ഇപ്പം നോക്കുന്നത് ആദ്യം എല്ലാം അലുമിനയത്തിലേനു ഇപ്പോൾ അലൂമിനിയം വയ്ക്കുന്നെല്ലാമുണ്ട് ഇപ്പം കുറച്ചുകൂടി കൂടുതൽ മൺചട്ടികൾ അങ്ങനെയുള്ള ഇതിലായിരിക്കും പിന്നെ ചായയൊക്കെ എപ്പോളും സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് വയ്ക്കൽ പാനിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ ദോശയെല്ലാം ചൂടുന്ന സമയത്ത് ഒരു പാനിൽ ചുടുന്ന ചുടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ അടിയിൽ പിടിക്കാണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എല്ലാം പറ്റും അപ്പോൾ അതായിരിക്കും അത് ഞാൻ കുറച്ച് ആയിട്ട് കാലമായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ടു പിന്നെ അത് മാറ്റലും ഇല്ല ചോറെല്ലാം വയ്ക്കുമ്പോൾ കുടുക്കയിൽ വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്തോ എന്തോ അതിൽ ഭയങ്കര ടേസ്റ്റ് ഉള്ളത് പോലെയെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്